നിലവിലുള്ള ചെടികളിൽ നിന്നും കൂടുതൽ ഉൽപാദിപ്പിക്കാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ എൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികൾ ഉണ്ട് കുടുതലും പ്ലേറ്റ് ചെടികൾ ആണ് അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല തരം വെറൈറ്റി കളറുകളാണ് അത് എന്ന് വെച്ചാൽ നമ്മള് ചട്ടിയിൽ വെച്ചാല് നിറച്ച് ഉണ്ടാകും ചട്ടില് അല്ല അത് നിലത്ത് നട്ടാലും അത് നല്ല അടിപൊളി ആയിട്ട് ഭംഗിയായിട്ട് ഇരിക്കും നമ്മള് നല്ലോണം നോക്കിയിട്ട് ഉണ്ടങ്കിൽ അത് എപ്പോഴും പൂവിട്ട് കൊണ്ടിരിക്കും അതിന് എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ ഒരു സീസൺ ഒന്നുമില്ല അതിന് ഇന്ന സീസൺ അനുസരിച്ചേ ഉണ്ടാകുകയുള്ളു അങ്ങനെ ഒന്നുമില്ല എപ്പോഴും പൂവ് ഇട്ടോണ്ടിരിക്കും നമ്മള് അത്യാവശ്യം നല്ലോണം വെള്ളം നനച്ച് കൊടുത്താൽ നല്ല ഒരു അതായത് ഓവറ് വെയിലും വേണ്ട വെയില് ഇല്ലാതെ ഇരിക്കാനും പാടില്ല അങ്ങനെ ക്ലൈമറ്റ് ലൈൻ വെച്ചിട്ടാണ് നല്ല അടിപൊളി ആയിട്ട് വളരും ഞാൻ കൂടുതല് അതിൻ്റെ കളക്ഷൻ ഞാൻ കൂടുതല് നോക്കാറ് പിന്നെ അത് എങ്ങനെയാണ് നോക്കാറ് അത് പിന്നെ എങ്ങനെയാണ് ഉൽപാദിപ്പിക്കാൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ അത് പെട്ടന്ന് പെട്ടന്ന് വളരും അപ്പം അപ്പോൾ ചെറിയ ഒരു കൊമ്പ് ആയിട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് വളർന്ന് വലുതാകും നമ്മള് ഉപയോഗിച്ചിട്ടുണ്ടങ്കിൽ അത് അതിൻ്റെ ഭംഗിയില് വെട്ടി കൊടുത്തിട്ട് വേറെ വേറെ നട്ട് നട്ട് കൊടുക്കണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടങ്കി മണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക പിന്നെ ചാണക വെള്ളം ചകിരിച്ചോറ് ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതായത് വേറെ രാസവളങ്ങള് ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെ നമുക്ക് നല്ല അടിപൊളി ചെടികള് കിട്ടും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ മഴ ഉണ്ടെങ്കിൽ ഒന്നരാടം വെള്ളം നനയ്ക്കുക മഴ ഇല്ലെങ്കിൽ ദിവസവും വെള്ളം നനച്ച് കൊടുക്കുക